ഹലോ ഞാനൊരു ഡെലിവറി ചെയ്തിട്ടുണ്ടാരുന്നേ ഇതൊരു ഡെലിവറി സെൻ്ററല്ലേ ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുണ്ടേ എനിക്കയിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിട്ടില്ല സോ അതിൻ്റെ അപഡേറ്റ്സ് എനിക്ക് വേണായിരുന്നു എൻ്റെ നമ്പർ എന്ന് പറയുന്നത് എഴുപത്തേഴ് മുപ്പത്താറ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് പൂജ്യം എട്ടാണ് ട്രാക്കിംഗ് ഐ ഡി എന്ന് പറയുന്നത് പതിനാല് പതിനേഴ് അറുപത്തി നാല് അറുന്നൂറ്റി എൺപത്തി മൂന്നാണ് ട്രാക്കിംഗ് ഐ ഡി ഈ ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ വാട്സപ്പിലേക്ക് ഒന്ന് പെട്ടന്നൊന്ന് ഇടാവോ ഇതുവരെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഇതും കിട്ടിയിട്ടില്ല നിങ്ങള് ഇതിനെ ബാക്കി കാര്യങ്ങള് ചെയ്യും ഇതിന് എനിക്കിന്ന് കിട്ടണ്ട നീതി കിട്ടുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ ബാക്കി ഉള്ള പ്രോസിജിയേഴ്സ് വേഗം നീക്കാൻ ഞാൻ ആഗ്ര നിങ്ങള് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു